മേക്കപ്പ് സാധനങ്ങൾ യൂസെയ്യുന്നതിനോട് ഒരു യോജിപ്പുമില്ലാത്തൊരാളാണ് ഞാൻ കാരണം ഞാൻ ഒരിക്കെ ഒ ഒരു മേക്കപ്പ് ഇട്ട സമയത്ത് എൻ്റെ മുഖം മുഴുവനും പൊള്ളി പൊങ്ങിവരുന്നൊരു അവസ്ഥയുണ്ടായി നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് യൂസീതെ എങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് പേരില് ഞാന് കണ്ടിട്ടുണ്ട് ഒരുപാട് കു കുഞ്ഞു മക്കള്തന്നെ ഇപ്പോള് ലിപ്സ്റ്റിക്ക് അങ്ങനെയിങ്ങനെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങള് യൂസേയ്ന്ന്ണ്ട് പക്ഷേ അത് വളരേ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മടെ സ്കിന്നിനെ ഡാമേജെയ്യുന്നല്ലാതെ അത് റിപ്പെയറ് ചെയ്യുന്നില്ല നമുക്ക് സ്കിൻ കെയര് ചെയ്യാം അതിനു കുഴപ്പില്ല പക്ഷെ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അത് ബാഡായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഞാന് കടയില് ചെന്ന് നല്ല ബ്രാൻഡെഡായിട്ടുള്ള സാധനമാണ് നോക്കി മേടിച്ചതെങ്കിൽ പോലും അത് എനിക്ക് യൂസെയ്യാനോ ഒന്നും പറ്റിയില്ല കാരണം എൻ്റെ സ്കിന്നിന് അലർജി ഉണ്ടായി അലർജിക് ഇഷ്യൂസ് ഒരുപാടുണ്ടാകും ഐലീനർ ഐലീന മേക്കപ്പ് സാധനങ്ങള് വരുന്നത് ഐലീനര് ഈവൻ പൊട്ടായാല്പ്പോലും അതിൻ്റെ പശ കാരണം അലെർജി വരുന്ന ആൾക്കാരുണ്ട് അലർജി വരുന്നതുപോയിട്ട് നമ്മുടെ സ്കിന്ന് ഡാർകെനായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാടിങ്ങനെ കറുത്ത് പോകുന്നുണ്ട് നമ്മള് നന്നായ് ട്ട് വെളുത്തിരിക്കാനായിട്ടില്ലെന്നുണ്ടെങ്കില് ഒന്ന് ഗ്ലോയി സ്കിനായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളീ മേക്കപ്പ് സാധനങ്ങളൊക്കെ യുസേയുന്നെ പക്ഷെ അ അതേ മേക്കപ്പ് സാധനങ്ങള് കൊണ്ടുതന്നെ നമ്മുടെ മുഖം ചീത്തയാ ചീത്തയാവുക ഇറിറ്റേഷനുണ്ടാവുക പൊ മുമ്പുണ്ടായിരുന്നേനെക്കാട്ടീം ഒരുപാട് കറുത്തുപോവുക പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോള് ലിപ്സ്റ്റിക്ക് പോലുള്ള സാധനങ്ങളിൽ ലെഡിൻറ്റംശം അമിതമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോള് ലെഡിൻറ്റംശം അമിതായിട്ട് അടങ്ങിയതുമൂലം ചുണ്ട് ഭയങ്കരമായിട്ടങ്ങ് കറുത്ത് പോവുക പിന്നെ ഈ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങള് നമ്മള് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഉള്ളില് പോകുന്നുണ്ട് അപ്പോഴതും നമുക്ക് ഒരുപാട് കേടായിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഫിസിക്കൽ പ്രോബ്ലെംസ് ഒരുപാട്ട്ട് ഉണ്ടാകും ഹെൽത്ത് പ്രോബ്ലെംസുണ്ടാവും സ്കിന്നില് ഒരുപാട് പ്രോബ്ലെംസുണ്ടാവും ഇതൊക്കെയും ഇഗ്നോറീതിട്ടാണ് പലരും ഇന്ന് മേക്കപ്പ് സാധനം യൂസീയ്യുന്നത് പക്ഷെ എനിക്ക് പേഴ്സ്ണലി അത് യൂസീയ്യുന്നതിനോട് യാതൊരുവിധ താല്പര്യവുമില്ല എനിക്ക് യൂസീതതിലൂടെ ബാഡെക്സ്പീരിയൻസ് മാത്രമെ ഉണ്ടായിട്ടുളളു